ഞാൻ ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു നീണ്ട ഒരു യാത്രയായിരുന്നു ഞാൻ എറണാകുളത്തേക്കായിരുന്നു പോവാൻ ഉദ്ദേശിച്ചിരുന്നത് ആ സമയത്ത് എൻ്റെ കയ്യിൽ വല്ലാത്ത ലഗേജും ഉണ്ടായിരുന്നു അപ്പോള് ഈ ലഗേജെടുത്ത് ഞാൻ ബസ്സില് കയറുന്ന സമയത്ത് നമ്മളുടെ നോർമലായുള്ള ഒരു കെ എസ് ആര് ടി സി ബസ്സായിരുന്നു അപ്പോള് അതിൽ കയറുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലഗേജൊക്കെ മേലെ ലഗേജ് ബോക്സിൽ വെക്കാൻ നോക്കി ലഗേജ് കാരിയറില് വെക്കാൻ നോക്കുന്ന സമയത്ത് ലഗേജ് കാരിയറിൻ്റെ സ്പേസ് എനി അവിടെയുള്ള സ്ഥലം എനിക്ക് തികയാതെവന്നു പിന്നീട് ഞാനതിനെ എടുത്ത് എൻ്റെ സീറ്റിൽ തന്നെ വെക്കാൻ ശ്രമിച്ചു പക്ഷെ സീറ്റിലിരുന്ന സമയത്ത് ഞാൻ ഇരുന്നത് വിൻഡോ സീറ്റിൻ്റെ സ ജനല് ഉള്ള സീറ്റിൻ്റെ സൈഡിലായിരുന്നു ഇരുന്നത് അതുകൊണ്ട് ആ സമയത്ത് വല്ലാതെ മഴ ഉണ്ടായിരുന്നു മഴ കാരണം എൻ്റെ സീറ്റുകള് വിൻഡോ ജനാലകള് അടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എൻ്റെ കാരിയർ ബാഗ് എൻ്റെ ലഗേജ് ബാഗൊക്കെ നനയാൻ തുടങ്ങി പിന്നീട് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാനതിൻ്റെ ജനാല അടച്ചത് ജനാല അടച്ചത് കൊണ്ട് പിന്നീട് ഞാന് നനയാണ്ട് അവിടെ ഇരിക്കാൻ പറ്റി ഇങ്ങനെ യാത്ര ഇങ്ങനെ നീണ്ട് പോവുകയായിരുന്നു ഏകദേശം കുറേ അങ്ങോട്ട് എത്തുന്ന സമയത്ത് നമ്മളുടെ ബസ്സിൽ നിന്നും വല്ലാത്ത എന്താണ് പുകയുടെ സ്മെല്ലും വല്ലാണ്ടൊരു സൗണ്ടും ഉണ്ടായിരുന്നു ആ സൗണ്ട് കാരണം നമ്മളിങ്ങനെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പാവുകയായിരുന്നു ബസ്സ് എങ്ങനൊക്കെയോ അതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ട്രാവല് ചെയ്യുകയായിരുന്നു ബസ്സിൽ പോയി പോയി പോയി പോയി രാത്രി സമയത്തുള്ള യാത്രയായത് കൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല ബസ്സില് കെ എസ് ആര് ടി സി ബസ്സായത് കൊണ്ട് തന്നെ നമുക്ക് അതില് കിടന്നുറങ്ങാൻ പറ്റിയില്ല എന്നാലും നമ്മള് നമ്മുടെ യാത്ര തുടരുകയായിരുന്നു പോയി പോയി വരുന്ന സമയത്ത് സീറ്റുകളാണെങ്കില് നമുക്ക് മറ്റേ കിടന്നുറങ്ങാനുള്ള രീതിയിലുള്ള സീറ്റുകള് ആയിരുന്നില്ല നമുക്കറിയാം സാധാരണ ഗതിയില് കെ എസ് ആർ ടി സിയില് സീറ്റുകളെന്ന് പറയുന്നത് വല്ലാണ്ടിങ്ങനെ ഇരിക്കുക എന്ന രീതിയിലുള്ള അല്ലാതെ പുഷ് ബാക്കായിട്ടുള്ള സീറ്റുകളൊന്നുമല്ല അപ്പോള് നമ്മളതിലെന്താണ് ചെയ്യുക ഇരുന്ന് പോവുക തന്നെയാണ് അതുകൊണ്ട് യാത്ര വലിയ സുഖകരമായിരുന്നില്ല എന്നാലും നമ്മളിങ്ങനെ തുടർച്ചയായി യാത്ര പോയി പൊയ്ക്കോണ്ടിരുന്നു പോവുകയാരുന്നു എന്നാലും എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ഒരു കെ എസ് ആർ ടി സി ട്രാവല് കൂടി ഇത്രയും ലോങ്ങായിട്ട് അതായത് നീണ്ട കാ നീണ്ട ഒരു ട്രാവലിങ്ങിന് നമ്മളൊന്നും കെ എസ് ആർ ടി സി ബസ്സിൽ ചെയ്യാൻ പാടില്ല കാരണമെന്താണെന്നുവെച്ചാല് നമ്മൾക്ക് കിടന്നുറങ്ങാനും അല്ലെങ്കില് ലഗേജ് കീപ്പ് ചെയ്യാനും ഒക്കെ വിൻഡോ സൈഡ് സീറ്റ് കിട്ടുകയാണെങ്കില് അതിൻ്റെ വിൻഡോ കാര്യങ്ങളും എല്ലാം നല്ല സെയ്ഫായിട്ടുള്ളൊരു ബസ്സാണെങ്കില് മാത്രമേ നമുക്കതില് ട്രാവല് ചെയ്യാൻ പറ്റുകയുള്ളൂ അതില് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോള് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇതുപോലുള്ള കെ എസ് ആര് ടി സി ബസ്സിലൊന്നും നമ്മള് നീണ്ട നീണ്ടുപോവുന്ന യാത്ര ഒന്ന് ചെയ്യാൻ പാടില്ല ചെറിയ നീണ്ടുപോവുന്ന യാത്രകളെയൊന്നും നമ്മള് നല്ല ബസ്സുകളായിട്ടുള്ള സ്ലീപ്പറായിട്ടുള്ള നല്ല ബസ്സുകളുണ്ടാവുമല്ലോ അതിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോള് ഇത്പോലെതന്നെ നമ്മള് അടുത്തുള്ള പ്ലെയിസുകളിൽ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ ബസ്സുകൾ അതായത് ഇതുപോലെ സൗകര്യക്കുറവുള്ള ബസ്സുകളിൽ നമുക്ക് പോകുന്നതിനു വലിയ ബുദ്ധിമുട്ടില്ല നമ്മളിപ്പോള് ഇത് ഡെയ്ലി ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ബസ്സുകളിൽ നമ്മള് പോകും അത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറില്ല കാരണമെന്തെന്നു വെച്ചാല് നമ്മള് കയറി ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കില് ഇരുപതോ മിനിറ്റ് കൊണ്ട് താഴെ ഇറങ്ങുന്നതായിരിക്കും അപ്പോള് അത് നമുക്ക് വല്ല ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷെ എന്താണ് നമ്മള് നീണ്ട ഒരു യാത്ര പോകുന്നതാണെങ്കിൽ മാത്രമേ അവിടെ ബുദ്ധിമുട്ടുള്ളൂ അപ്പോള് നമ്മളെന്നും നീണ്ട യാത്ര പോകുന്ന സമയത്ത് ബസ്സിൻ്റെ സീറ്റും ബസ്സിൻ്റെ വിൻഡോ കാര്യങ്ങളും അവിടെ ലഗേജ് കീപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ബസ്സിൻ്റെ എഞ്ചിനോ കാര്യങ്ങളോ എല്ലാ കാര്യത്തിനെപ്പറ്റി നമുക്ക് അതായത് ബസ്സിനെപ്പറ്റി നമ്മൾക്ക് കൂടുതലൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നാല് മാത്രമേ നമുക്ക് നീണ്ട യാത്രകൾ പോവാൻ അത് സൗകര്യപ്പെടുകയുള്ളൂ അല്ലാത്തപക്ഷം നമ്മള് ചെറിയ ചെറിയ ദൂരമേ ഉള്ളൂ പോവുന്നത് അല്ലെങ്കില് ഡെയ്ലി നമ്മളിപ്പോള് ഒരു ജോലിക്ക് പോകുന്നതാണെങ്കിൽ അതുപോലുള്ള സമയങ്ങളില് നമുക്ക് ഈ ബസ്സുകളൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മള് പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങുന്നതാണ് അവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടാറില്ല അതുകൊണ്ട്തന്നെ അത് വലിയ കാര്യമായിട്ട് നമ്മള് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പോള് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് അടുത്തുള്ള പ്ലെയിസുകളിൽ പോകുമ്പോള് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ഇറങ്ങാനുള്ളതാണ് അതുകൊണ്ടുതന്നെ കയറിക്കഴിഞ്ഞാല് നമുക്ക് ഇരിക്കാൻ സീറ്റുണ്ടോ എന്ന് നോക്കുക ഇരിക്കാൻ പറ്റുന്ന സീറ്റാണെങ്കിൽ അവിടെ കയറി ഇരിക്കുക അതേസമയത്ത് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പോവുന്നത് കൊണ്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണമെന്നുവെച്ചാല് നമ്മള് പെട്ടെന്ന് ഇറങ്ങുന്നതാണ് പക്ഷേങ്കിൽ നീണ്ട യാത്ര പോകുന്ന സമയത്ത് നമ്മള് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ബസ്സിൻ്റെ സീറ്റ് ശ്രദ്ധിക്കണം നമുക്ക് കംഫേർട്ടായി നമ്മള് നന്നായി ഇരി നല്ല രീതിയിൽ നമുക്ക് ഇരിക്കാനും പറ്റണം രാത്രികാലത്ത് പോകുന്നതാണെങ്കിൽ നമുക്കവിടെ കിടക്കാനുള്ള ബസ്സിൻ്റെ പുഷ് ബാക്ക് സീറ്റായിരിക്കണം ഇതുപോലുള്ള കുറേ കാര്യങ്ങള് നമ്മള് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോള് ഞാനൊരു തവണ പോയപ്പോള് ഇതുപോലുള്ളൊരു അനുഭവം ഉണ്ടായത് കൊണ്ട് തന്നെ പിന്നീടുള്ള എൻ്റെ എല്ലാ യാത്രകളിലും ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അ ദൂര യാത്ര പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള ലഗേജ് വെക്കാനുള്ള സ്പേസുണ്ടോ ആ ബസ്സിലെങ്ങനെയാണ് സൗകര്യം അത് വെക്കാനുള്ള സ്ഥലമുണ്ടോ അതേപോലെതന്നെ ബസ്സിൽ കയറിയിരുന്നു കഴിഞ്ഞാല് കംഫാർട്ടായ സീറ്റുണ്ടോ നന്നായി ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളുണ്ടോ അതുപോലെതന്നെ അവിടുത്തെ ജനാലകള് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് എയര് ആവശ്യമുള്ളപ്പോള് തുറക്കാനും അല്ലാത്തപ്പോള് അതിന് നന്നായി കവര് ചെയ്തു വെക്കാനുള്ള സൗകര്യമുണ്ടോ എന്നെല്ലാമുള്ള കാര്യങ്ങളും നമ്മള് ശ്രദ്ധിക്കാറുണ്ട് അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു നിയ ബസ്സിലുള്ള യാത്രയുടെ ഒരനുഭവം എന്ന് പറയുന്നത് അപ്പം ഞാനൊരു പാസഞ്ചറായിട്ടുള്ള സമയത്ത് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇതായിരുന്നു